ഹലോ അതെല്ലോ ചെമ്മീൻ അച്ചാറോ ചെമ്മീൻ അച്ചാർ ഇടുന്ന ബുക്കോ അങ്ങനെയൊന്ന് ഇവിടെ ഇല്ലല്ലോ ഇവിടെ മറ്റ് വായിക്കാൻ പറ്റുന്ന മറ്റുള്ള പുസ്തകങ്ങൾ ഒക്കെ ആണല്ലോ ആ അത് എവിടെ കിട്ടുമെന്ന് നമുക്ക് അങ്ങനെ പറയാനൊന്നും വയ്യ ഇവിടെ ഇങ്ങനെ വായന വായനയ്ക്കുള്ള പുസ്തകങ്ങളും അതുപോലെ ഉള്ളതൊക്കെ ഉള്ളൂ അറിവൊക്കെ നേടുന്ന പുസ്തകങ്ങൾ ഒക്കെയാണ് ഇവിടെ ഉള്ളത് ആ നമുക്ക് പോവാം അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് അന്വേഷിക്കണം ആ നോക്കട്ടെ എന്ന് വേണ്ടതാണ് എന്നാണ് എന്നത്തേക്ക് ഉള്ളതാണ് ആ നമ്മൾ കോണ്ടാക്റ്റ് ഉള്ള ആ പബ്ലികേഷനുമായിട്ട് ഒന്ന് നോക്കട്ടെ നോക്കാം ആ എന്തിനാണ് അത് അങ്ങനെ ആ കൊടുത്തു വിടാനോ അപ്പോൾ വിലയോ വില എന്തായാലും മേടിക്കുമോ അതുശരി അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ കിട്ടണം എന്നുണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ കിട്ടണമെന്ന് ഒക്കെ ഉണ്ടോ ആ അപ്പം നമ്മൾ നമുക്ക് ലഭിക്കുന്ന പുസ്തകം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അത് സ്വീകരിക്കുമോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുസ്തകം ചെമ്മീൻ അച്ചാർ എന്നു മാത്രമേ ഉള്ളൂ അതോ ഏത് പബ്ലികേഷന്റെ ആണെന്നോ വല്ല ഒക്കെ ചിന്തയുണ്ടോ ഇല്ല ഓക്കെ ഉവ്വ് ആ പോര് അപ്പം ശരി ഓക്കെ ഓക്കെ ചോദിച്ച് നോക്കാം കേട്ടോ ചോദിച്ച് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ വല്ല നമ്പറും ഉണ്ടോ കിട്ടിയാൽ

ശരി ശരി തീർച്ചയായും തീർച്ചയായും

അപ്പോൾ ഓക്കെ സാർ ഞങ്ങൾ നിങ്ങളെ ഇപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ച് മേടിച്ചു തരാം കേട്ടോ ശ്രമിക്കാം ശരി ശരി ശ്രമിക്കാം ശ്രമിക്കാം ഓക്കെ ഓക്കെ